ഇപ്പോൾത്തന്നെ നമക്കെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്ന വെള്ളം കിണർ വെളളമാണ് അപ്പോഴെന്നു വച്ചാൽ ശുദ്ധമാണോയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കിണർ വെള്ളം പൊതുവെ ശുദ്ധമാണ് ആയിരിക്കുമല്ലോ പിന്നേയെന്നു വച്ചാൽ ഈ തവള ഇലകൾ വീഴുക അതൊക്കെ നമ്മൾ കൊതുക് അതായത് കൊതുകുവലപോലത്തെ എന്തെങ്കിലും വല ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കുറച്ച് മാറിക്കിട്ടും പിന്നയങ്ങനെ ചെറു ചെറു ജീവികൾ അതൊക്കെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ നമ്മളെ ശരീരത്തിനൊന്നും അത്ര ഹാനികരമായിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതായത് അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് നമുക്ക് കിണറ്റിൽ നിന്നു കിട്ടുന്നത് അതായത് നമ്മളെ ഭൂമീൻ്റെ അടിയിൽ നിന്നു കിട്ടുന്ന വെള്ളമാണല്ലോ അപ്പോഴെനിക്ക് നമ്മൾ അതായത് എൻ്റെ വീട്ടിലൊക്കെ കിട്ടുന്നത് ശുദ്ധമായട്ടുള്ള വെള്ളം തന്നെയാണ് വീട്ടിൽ കുഴൽ അതായത് വേനൽക്കാലമായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് കുഴൽക്കിണർ കുഴിയ്ക്കാൻ നോക്കുന്നുണ്ട് പിന്നെയെന്നു വച്ചാൽ ടാപ്പ് വെള്ളം ലഭിക്കാറുണ്ടോയെന്നു ചോദിച്ചാൽ ടാപ്പ് വെള്ളം ഇവിടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ടാപ്പ് വെള്ളം അതായത് ചിലവരൊക്കെ ടാപ്പ് വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടെന്നു വച്ചാൽ ടാപ്പ് വെള്ളം കറക്ട് ടൈമിൽ വരില്ല ചിലപ്പം ചിലപ്പം വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവും ആ ഒരു അവസ്ഥയായിരിക്കും പിന്നേയെന്നു വച്ചാൽ ടാപ്പ് വെളളം എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല കാരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെപ്പോഴെങ്കിലെ വരുളളൂ നമ്മൾ നിറച്ച് വയ്ക്കുന്ന വെള്ളം നമ്മളങ്ങനെ ഇപ്പം എന്നു വച്ചിട്ട് നമ്മൾ ലാവിഷായിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത് അപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം നമുക്ക് ടാപ്പ് വെള്ളം മാത്രമേ ഉണ്ടാവുളളൂ െ എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ കുറയ്ക്കാൻ തുടങ്ങും അതായത് വെള്ളം ഉപയോഗിക്കുന്ന രീതി ഒക്കെ കുറയ്ക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതലായിട്ടും നമുക്കത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ വെള്ളം കിട്ടി കിട്ടി ശീലിച്ചിട്ട് പെട്ടെന്ന് ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവും ആ ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും